ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു നർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് കുറേ കുറേ സ്വപ്നങ്ങളുണ്ട് അതായത് എൻ്റെ ഞാൻ പഠിക്കുന്ന നൃത്തം അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കല അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ അതായത് ഒരു ടീച്ചറായിട്ട് സ്കൂളിൽ അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെതായിട്ടൊരു അക്കാഡമി തുടങ്ങിയാൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെയൊരു സ്വപ്നമാണത് പിന്നെ അതേപോലെതന്നെ ഒരുപാട് ഫോള്ളോവെർസുള്ളൊരു സെലിബ്രറ്റിയായൊരു ഡാൻസ് സെലിബ്രറ്റിയായിട്ട് വരണമെന്നുണ്ട് ഒരു കൊറിയോഗ്രാഫറായി മാറണം എന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു മൂവിയിൽ നല്ല ഒരു മൂവി കിട്ടിയാൽ അതിൽ എന്താ പറയുക കൊറിയോഗ്രാഫറായിട്ട് മൂവി കൊറിയോഗ്രാഫ് ചെയ്ത് ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്ത് അത് അങ്ങനെ ഒരാളായി വരണം എന്നും എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇങ്ങനെ കുറേ കുറേ സ്വപ്നമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നൃത്തം എന്നുള്ളത് വളരെയധികം നൃത്തം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം ലഭിക്കുന്നു ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു സമാധാനപരമായിട്ടുള്ളൊരു സമയം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്ത് അവർക്കും ഭയങ്കര പീസ് ഫുള്ളായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി അവരെയും സഹായിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെ വളരെയധികം സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനത്തെയുള്ള സ്വപ്നങ്ങളെല്ലാം നടത്തണമെന്നും എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്